ആ ഞാൻ ഫർണിച്ചറിനെപ്പറ്റി അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു അതായത് ഞാൻ പുതിയൊരു വീട് കെട്ടിയിട്ടുണ്ടായിരുന്നു പുതിയൊരു വീട് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വേണ്ട എല്ലാ ഇതും എനിക്ക് വേണം എല്ലാ രീതിയിലുള്ള പ്രൊഡക്റ്റ്സും എനിക്ക് വേണം ആണല്ലേ

അതിന് അതെങ്ങനെയാണ് റേറ്റ് വരുന്നത്

അതേപോലെ ഈ ഡൈനിംഗ് ടേബ്ള് ചെയേഴ്സ് അതൊക്കെയാവുമ്പോഴോ

ആ ഓക്കെ അത് വുഡൊക്കെ ഏതാണ് വരുന്നത് വുഡെങ്ങനെയാണ് വരുന്നത് ആ ആ ആ ആ ആ ഏകദേശം എത്ര വ്യത്യാസം വരും എത്രത്തോളം വ്യത്യാസം വരും ആണല്ലേ ആ

ആഹാ ഇപ്പോൾ ഓണമായതുകൊണ്ട് ഓഫറൊക്കെ ഉണ്ടാകുമായിരിക്കില്ലേ